തലമുറകളായിട്ട് അവരുടെ ആ ഒരു എന്താ പറയുക അവരുടെ അച്ഛനപ്പൂപ്പന്മാരായിട്ട് തുടർന്ന് വന്നത് ചിലർ ഇപ്പോഴും തുടർന്ന് പോരുന്നു അല്ലാത്തവർ അതൊക്കെ പണ്ടേ പുറംതള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നില്ല പിന്നെ കലാരൂപങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ വിഷു ആയി കഴിഞ്ഞാൽ ഈ കോടങ്ങി എന്ന് പറയുന്ന അവരുടെ വേഷം കെട്ടി ഇങ്ങനെ എല്ലാ വീട്ടിൽ കൂടെയും വിഷുക്കൾ വിഷു വന്നത് അറിയിക്കും അങ്ങനത്തെ ഒക്കെ ഒരു ഇത് ഉണ്ട് കാട്ടു നായിക്കൾ അങ്ങനെ എന്തോ ആ വിഭാഗത്തിൻ്റെ പേര്

പിന്നെ വസ്ത്രങ്ങളുടെ ഇത് പറയുകയാണെങ്കിൽ വസ്ത്രങ്ങൾ ഇപ്പോഴും പഴയ ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെ ഇവിടേക്ക് ഒക്കെ കൂടുതലും സാരിയൊക്കെ ഉടുത്ത് ആണ ആണുങ്ങൾ ആണെങ്കിൽ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് എങ്ങനെ ആണെങ്കിൽ അത് ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടികളൊക്കെ ആണെങ്കിൽ കേട്ടോ ഫെസ്റ്റിവലൊക്കെ ആണെങ്കിൽ ഓണം അങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ ഇല്ലേ അപ്പം മാത്രം അല്ലാത്തപ്പം ഒക്കെ സാധാ പോലെ അല്ലെങ്കിൽ പാൻറ് ഇതൊക്കെ ഇടുക അല്ലാത്തപ്പം മുണ്ട് സാരി അങ്ങനെ ഒക്കെ പോലെ ട്രഡീഷണലായിട്ടുള്ള ഇതിലായി പോകും